ഹലോ എസ് എം ജൂലറി അല്ലേ ആ ആ ചേച്ചി ഞാൻ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാന് വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ അവിടെ ഞാന് കുറച്ച് നാളുകള്ക്ക് മുൻപ് അവിടുന്നൊരു കൊലുസ് പാദസരം എടുത്തിരുന്നു അപ്പോൾ അതിന്റെ എനിക്ക് ഉണ്ട് അത് ഒരെണ്ണം എനിക്ക് നഷ്ടപ്പെട്ട് പോയി അപ്പോൾ മറ്റൊരെണ്ണം മറ്റൊരെണ്ണം മാ ജോഡീടെ ഒരെണ്ണം എന്റെ കയ്യിലുണ്ട് അത് അവിടെ അവിടെന്ന് വന്നൊന്ന് മാറിയെടുക്കാം എന്ന് വിചാരിച്ചായിരുന്നു ആ അപ്പോൾ നിങ്ങളുടെ ജൂലറിന്ന് തന്നെ എടുത്താണ് അപ്പം അതൊന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയായിരുന്നു

ആ ഓക്കെ ഓക്കെ ഞാന് മറ്റൊരു ഡൗട്ടും കൂടെ ചോദിക്കാനാണ് വിളിച്ചത് ഇതിന്റെ തന്നെ എനിക്ക് മറ്റൊരു പീസെടുക്കുന്നത് എടുക്കാന് ഏകദേശം എങ്ങനെയായിരിക്കും അതോ അതോ ഇതെന് എനിക്ക് ഇത് ഇത് പൂര്ണ്ണമായിട്ട് അങ്ങ് തിരിച്ച് തന്നിട്ട് എനിക്ക് വേറൊരു വേറൊരു ജോഡി തരാന് കഴിയുമോ നിങ്ങൾക്ക് ആ ഓക്കെ ഓക്കെ ഞാന് ഇതിപ്പം ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന കൊലുസെന്ന് പറയുന്നത് ഒരു പ്ലേയിനാണ് ചെറിയ ഡിസൈന് അതായത് സ്വര്ണം ഡിസൈന് തന്നെ പക്ഷേ കല്ലുകളൊന്നും ഇല്ല അപ്പം എനിക്ക് ചെറിയ കല്ലൊക്കെ ഉള്ളത് എടുത്താല് കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ റേറ്റിന് എങ്ങനെ ഏകദേശം എന്തോരം വ്യത്യാസം വരും ആ ഓക്കെ ഓക്കെ പിന്നെ ഇപ്പം ഞാൻ പൂര്ണ്ണമായിട്ടും എക്സ്ചേഞ്ചായിരിക്കോ അതോ എക്സ് എക്സ്ചേഞ്ച് ഓഫറ് പോലെ ഉണ്ടാവുമല്ലോ അല്ലേ ആ അപ്പം ഇത് മാര് ഒരു രണ്ട് മൂന്ന് കല്ല് ചെറിയ ചെറിയ ഡിസൈനൊള്ള കല്ലാണ് ഞാന് പാദസരമാണ് ഞാന് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഞാന് ഫൈനലി ഞാന് ഞാൻ അങ്ങോട്ട് വന്നോളാം പിന്നെ ഒരു കാര്യം ഇതിന്റെ ബില്ല് മാത്രം മതിയോ മാറാന് അതോ മറ്റേ കാഡോ മറ്റേ സ്വര്ണ്ണത്തിന്റെ അളവൊക്കെ എഴുതിയ കാര്ഡ്കളുണ്ട് അതും വേണോ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഏകദേശം ഇപ്പം ഇപ്പം ഇപ്പം ഗ്രാമിന് ഏകദേശം ഇപ്പോഴത്തെ റേറ്റെത്രയാന്ന് അറിയുമോ ഏകദേശം ഒരു ഒരു ഗ്രാമിന് വന്നത് ഓക്കെ ആ അതേ പോലിപ്പം ഞാൻ ഒരു റെഫറന്സ് കാ റെഫറന്സ് കാണിച്ചാൽ എനിക്ക് പണിത് തരാൻ പറ്റുമോ ആ ഓക്കെ ഓക്കെ ആ അപ്പം ഞാന് ഞാന് നിങ്ങളെ സമീപിച്ചോളാം കേട്ടോ ഓക്കെ ബൈ